ഞങ്ങളുടെ വീട്ടിൽ രാവിലെ രാവിലെ പ്രാതലിന് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അരി അരി ആഹാരങ്ങളാണ് അത് നല്ല രുചിയോടെ നല്ല രീതിയിലുണ്ടാക്കുക എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവുമാണ് പക്ഷെ സമയമില്ലാത്ത സമയത്തോ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പോവേണ്ടി വരിക അങ്ങനെ ഒക്കെ പെട്ടെന്ന് സമയില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേരുവകളൊക്കെ വീടുകളിൽ ചിലപ്പം കുറവായിരിക്കുമല്ലൊ രാവിലെ തന്നെ കടയിൽ പോയി വാങ്ങാൻ കഴിയില്ല അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ റവ റവ വച്ചിട്ട് ഉപ്മാവ് തയ്യാറാക്കാറുണ്ട് അത് വളരേ നല്ല രീതിയിൽ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെജിറ്റബിൾസൊക്കെ കൂടുതൽ ഉപയോഗിച്ച് എണ്ണ കുറച്ച് നല്ല രീതിയിൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ നല്ല നല്ല രുചിയിൽ ഉണ്ടാക്കാറുണ്ട് ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളണെങ്കിൽ വൈകുന്നേരം ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് കൂടുതലും വീട്ടിൽ അപ്പോൾ പതിവായിട്ട് ഉണ്ടാക്കാറുള്ളത് ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ റാഗി കുറുക്ക് ഉണ്ടാക്കി കുട്ടികൾക്കും എല്ലാവർക്കും നൽകാറുണ്ട് റാഗി കുറുക്ക് വളരേ നല്ല ഒരു ഭക്ഷണാണ്

റാഗി റാഗി റാഗി കുറുക്ക് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അതവർ കഴിക്കാനിഷ്ടപ്പെടുന്നതു മായ സാധാരണ രീതീല് ഉണ്ടാക്കുന്ന റാഗി കുറുക്ക് കുട്ടികളങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഞാൻ നല്ല രീതിയിൽ തേങ്ങപ്പാലൊക്കെ ചേർത്ത് ഏലക്കായ ചേർത്ത് ഒരു പായസ രൂപത്തിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത് നല്ല ഇഷ്ടാണ് അവരത് കഴിക്കാറുമുണ്ട്